ഇപ്പ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിവാഹം വിവാഹമെടുത്തു നോക്കുക ആണെന്ന് ഉണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ നാട്ടിലും അല്ലെങ്കിൽ ഓരോരോ ജാതിയൊക്കെ എടുത്ത് നോക്കുകയാന്ന് ഉണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ പല നാട്ടിലും പല രീതിയിലായിരിക്കും അവരുടെ വിവാഹച്ചടങ്ങുകളും അതിൻ്റെ ഓരോന്നിൻ്റെയും ക്രിയകളും അതിൻ്റെ ആചാരങ്ങളുമൊക്കെ വ്യത്യസ്തമാവും ഇപ്പം നമ്മളെ ഹിന്ദുക്കളുടെയിൽ തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ കുടുംബങ്ങളിൽ കല്യാണത്തലേന്ന് അയനൂൺ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അങ്ങനെ എക്സ്ട്രാ കുറേ ഇങ്ങനെ ആചാരങ്ങൾ കൂട്തലാണ് അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ കൾച്ചറും ഓരോ ഇതിലും എടുത്തു നോക്കുക ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ വിവാഹം ചടങ്ങുകളായിരിക്കും ഉണ്ടാവുക കുറേ കുറച്ച് സമുദായങ്ങളിൽ കൂടുതലും കുറച്ച് അതിൽ കുറവുമായിരിക്കും നമ്മുടെ മുസ്ലിം കല്യാണങ്ങൾ മുസ്ലിം കല്യാണങ്ങൾ എടുത്തു നോക്കുക ആണെന്നുണ്ടെങ്കിൽ അ ഹിന്ദുക്കളേതിൽ വച്ച് നോക്കുമ്പോൾ വളരേ വ്യത്യസ്തമാണ് അവർക്ക് ഇപ്പോൾ എന്താണ് പറയുക അവർക്കും കുറേ ആഭരണങ്ങളുണ്ടാവും ഹിന്ദുക്കൾക്കും കുറേ ആഭരങ്ങളുണ്ടാവും പക്ഷെ അവരുടെ അവർ ഉച്ചക്ക് കഴിക്കുന്ന ഫുഡ്ഡ് ഇപ്പം നമ്മൾ ഹിന്ദുക്കളുടേതിൽ ഉച്ചക്ക് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഫുഡ്ഡ് സദ്യയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിക്കനും ബിരിയാണിയും കാര്യങ്ങളും അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെട്ട ആൾക്കാരുകൾ ആൾക്കാരുടെ അടുത്ത് നോക്കുക ആണെന്നുണ്ടെങ്കിലും പിന്നെ അതു മാത്രം അല്ല ദേശങ്ങൾക്കനുസരിച്ചും വിവാഹചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും മാറുന്നുണ്ട്